ആ ഹലോ ആ ഹലോ സാർ ബാഗ് വൈക്കം ഭാഗത്തുനിന്ന് എൻ്റെ ഒരു ബാഗ് മിസ്സായിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ പുൽപള്ളി ഞാൻ മീനങ്ങാടിക്ക് പോവായിരുന്നു അപ്പോൾ എൻ്റെ ബാഗ് മിസ്സായിപ്പോയി എൻ്റെ പേഴ്സും കാര്യങ്ങളും എല്ലാം അതിനകത്താണ് ഉള്ളത് ബസ്സീന്ന് ആ അതെയതെ

രാവിലെ ഒരു പതിനൊന്നുമണിയൊക്കെ കഴിഞ്ഞപ്പം ഒരു പന്ത്രണ്ടുമണി ആ ടൈമിലൊക്കെ ആ എൻ്റെ ബാഗിൽ എൻ്റെ ബാഗിൽ ഏയ് കൂടെ കൂടെ അറിയില്ല വേറെ ഏതോ ഒരു ചേച്ചിയാണ് ഇരുന്നത് എനിക്ക് അറിയില്ല ആരേം അറിയില്ല ഇല്ലയില്ല ബസ്സുകാരോട് ബസ്സുകാരോട് പറഞ്ഞൊന്നുമില്ല ഇല്ലയില്ല ബാഗിലെൻ്റെ പ്രൂഫും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് എൻ്റെ ബാങ്ക് പാസ്ബുക്ക് ഐ ഡി കാർഡ് ആ പിന്നെ ഇറങ്ങിയപ്പോൾ ഡ്രൈവറോട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടക്ടറോടും പറഞ്ഞായിരുന്നു ആ അങ്ങനെയായിരുന്നു പറഞ്ഞത് ആന്ന് എന്നാൽ ആയിക്കോട്ടെ കാരണോന്നുവെച്ചാൽ എൻ്റെ എല്ലാ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ബാഗിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ആ ആ ആയിക്കോട്ടെ ആ ഇടയിൽ ഇടയിൽ പന്ത്രണ്ടുമണിക്ക് അന്ന് പുൽപ്പള്ളീന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ് ആ ഞാൻ വരാം വരാം എപ്പത്തൊട്ടു നാളെ വരാനാണോ ആ ആയിക്കോട്ടെ സാർ വന്നേക്കാം ആ ആ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ആയിക്കോട്ടെ ശരി

ആ